നമ്മൾ കരയിൽ നിന്ന് ആഴത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കൈയിൽ കരുതേണ്ടത് ലൈഫ് ജാക്കറ്റ്സ് ഓക്സിജൻ സിലൻഡേഴ്സ് ഇത് രണ്ടും നമ്മക്ക് പ്രയോജനപ്പെടും കാരണം ശ്വാസം നമ്മൾക്ക് നിലനിർത്താൻ സാധിക്കും ഓക്സിജൻ സിലൻഡറൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ സുരക്ഷിതമായിരിക്കും പിന്നെ നമ്മൾ കൂടുതൽ കൈ ഇട്ട് അടിക്കാതെ കാലുകൾ താ ആദ്യം അടിച്ചു നമ്മൾക്ക് കുറച്ചു ഒരു ഇതാകുമ്പോൾ അപ്പോൾ നമ്മൾക്ക് കൈ കഴക്കാണ്ട് ഇരിക്കും അതല്ല എങ്കിൽ നമ്മൾ കൈയ്യും കാലും അടിക്കുമ്പം നമ്മൾക്ക് കൈയുടെ ആ ബലം അങ്ങ് കുറഞ്ഞു വരും പിന്നെ നമ്മൾക്ക് നീന്താനുള്ള ആ ശേഷി കുറയും കാലുകൾ മാത്രം അടിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഒരു സമയത്ത് തന്നെ നമുക്ക് കൈ ഫ്രീ ആയിരിക്കും കാലുകൾ അടിച്ചു നമ്മൾക്ക് നീന്തി കുറച്ചു ചെല്ലാൻ പറ്റും പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് മുങ്ങി പൊങ്ങി തലപൊക്കുക എന്നിട്ട് കുറച്ചു നേരം നിന്നിട്ട് പിന്നേയും നീന്തുക അപ്പം നമ്മൾക്ക് ഒരു സമയം കൊണ്ട് അകലെ എത്താൻ സാധിക്കും വലിയ ശാരീരിക പ്രശ്നങ്ങളോ ഒന്നുമില്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നീന്തൽ അറിയാൻ പറ്റും ഓക്സിജൻ സിലണ്ടറൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രീത്ത് കണ്ട്രോൾ ചെയ്തു നമുക്ക് ഇച്ചിരി കൂടെ നമുക്ക് ഇതാകും ശ്വാസം നമുക്ക് കണ്ട്രോൾ ചെയ്തു നിലനിർത്താൻ പറ്റും ഇങ്ങനെ നമ്മൾക്ക് കുറേ നേരം വെള്ളത്തിൽ നിന്ന് നീന്തി ഈ കരയിൽ നിന്ന് അക്കരെ കരയിലേക്ക് എത്താൻ സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാറ വഴുക്കലുണ്ടോ ഒരുപാട് ആഴങ്ങളിലേക്ക് കൂടുമ്പോൾ അള്ളുകളുണ്ടോ ശക്തമായ ഒഴുക്ക് പിന്നെ ഇപ്പ പാറയിൽ വഴുവഴുപ്പൊക്കെ കാണും അതായത് നമുക്ക് നീന്തൽ നമുക്ക് തടസ്സമായിരിക്കും നമുക്ക് അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പം ലൈഫ് ജാക്കറ്റ്സ് ഉപയോഗിച്ചു യൂസ് ചെയ്യുക അപ്പോൾ ഒഴുക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അപ്പം നമ്മൾ ഒത്തിരി അത് പോകത്തില്ല പിന്നെ

നീന്തി വെള്ളത്തിൽ അടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ യൂസ് ഇത് യൂസ് ചെയ്യുമ്പം നമുക്ക് ബ്രീത്ത് കണ്ട്രോൾ ചെയ്യുമ്പം പറ്റും അങ്ങനെ നമ്മൾക്ക് കൂടുതൽ നേരം നമുക്ക് വെള്ളത്തിൽ തന്നെ നിന്നു നീന്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്